ആ എന്താണ് ആ അതെ ആ എല്ലാം വന്നിട്ടുണ്ട് ഇന്നലെ എല്ലാ സാധനങ്ങളും പുതിയത് വന്നിട്ടുണ്ട് സ്റ്റോക്ക് കുറേ വന്നിട്ടുണ്ട് ഏതിൻ്റെയാണ് ചോദിക്കുന്നത് ആ എറേടെ ഉണ്ട് എറേടെ ഉണ്ട്

ആ ഡിന്നർ സെറ്റ് ഉണ്ടല്ലോ ഡിന്നർ സെറ്റ് ഉണ്ട് വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് അത്യാവശ്യ കളറ് എല്ലാം വന്നിട്ടുണ്ട് വൈറ്റ് നന്നായിരിക്കും ആറാണ് ആറാണ് ആറ് എണ്ണമാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത് ആറ് എണ്ണമാണ് പന്ത്രണ്ടല്ല ആറാണ് ഒരെണ്ണം ആറാണ് അതൊരു അറുന്നൂറ്റമ്പത് രൂപയാവും

അതെ ലെയ്റ്റാ പുതിയ സ്റ്റോക്ക് വന്നിരിക്കുന്ന വളരെ ലൈറ്റ് ആയിട്ടുള്ളതാണ് ലൈറ്റ് വെയിറ്റ് ആണ് അത് കാരണം അത് കുറച്ച് വില കൂടുതലാണ് പിന്നെ പഴയ സ്റ്റോക്ക് ഉണ്ട് അത് നാന്നൂറ്റി പഴയ സ്റ്റാക്ക് ഉണ്ട് അത് നാണൂറ്റി അമ്പത് രുപയേ ഉള്ളൂ ആ എം ആർ പി യോ ഇത് കുറച്ച് കുറവുണ്ടാവും എം ആർ പി കഴിഞ്ഞിട്ട് കുറച്ച് നമ്മളുടേതായ കുറച്ച് കുറവുണ്ടാവും പിന്നെന്താണ് വീട്ടിൽ എത്തിക്കാമല്ലോ അഞ്ഞൂറ് രുപയിൽ കൂടുതലുള്ള ഏത് സാധനവും നമ്മൾ വീട്ടിലെത്തിക്കും ഓൺലൈൻ പായ്ക്കറ്റ് ഉണ്ട് അതുമതി അതുമതി അല്ലാ ഇത് മിഷിൻ കൊണ്ട് വരുന്നെങ്കിൽ കാർഡ് കൊടുക്കാം ഇല്ലാ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ കാഷ് കൊടുക്കാം വിശ്വാസം ഉണ്ടെങ്കിൽ കയ്യിലും കാഷ് കൊടുക്കാം രണ്ടും ചെയ്യാം നമ്മുടെ കസ്റ്റമറ് തന്നെയാണ് വരുന്നത് അത് പേടിക്കാനൊന്നും ഇല്ല

ആ അത് നിങ്ങളുടെ കാർഡിൻ്റെ ഇതനുസരിച്ച് നിങ്ങൾ സാധനം എടുക്കുന്നത് അനുസരിച്ച് ചിലപ്പോൾ ക്രെഡിറ്റ് വരാൻ ചാൻസ് ഉണ്ട് ആ ആ അത് ഇതിൽ ഇതിൽ അതിൽ വ്യത്യാസം കാണിക്കുന്നില്ല ആ ഇത് പക്ഷെ കമ്മീഷ ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ പുതിയ സ്റ്റോക്ക് വന്നതായത് കൊണ്ട് ആ ആണ് അതിൽ ഞങ്ങൾക്കൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ ആ ഡീലർ ഇപ്പോൾ ആ ഡീലറ് നിങ്ങൾ ഇപ്പോൾ ഇത ആ ആ ആ അപ്പോൾ വരുമ്പം നമുക്ക് നോക്കാം ആ വരികയാണെങ്കിൽ ഓ ഓക്കെ അപ്പോൾ വരുമ്പം നമുക്ക് നോക്കാം അങ്ങനെയാണെങ്കിൽ ആ അപ്പഴത്തേന് അപ്പം സൗകര്യമായിട്ട് നിങ്ങൾ തന്നെ ഇങ്ങോട്ട് വരുന്നതാ എന്നാൽ വരാൻ പറ്റുമെങ്കിൽ അത് കുറച്ചുകൂടെ നന്നായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ കൊടുത്ത് വിടാം ആ ആ കമ്പനിക്കൊക്കെ സുഖം തന്നെ പറ്റുമോ ആ ആളിനെ അയക്കാം ആളിനെ അയക്കാം എന്താണ് വേണ്ടതെന്ന് ലിസ്റ്റ് പറഞ്ഞാൽ മതി ഇതാ ലിസ്റ്റിൽ ഇങ്ങോട്ട് അയച്ചെ വാട്ട്സപ്പില് ആ വാട്ട്സാപ്പില് ലിസ്റ്റ് അയച്ച് തന്നാൽ മതി ആ ഒരു രണ്ട് മണിക്കൂറിനകത്ത് നമ്മൾ സാധനം അവിടെ എത്തിക്കുന്നത് ആയിരിക്കും എല്ലാമുണ്ട് ഫ്ലാസ്ക്ക് ഉണ്ട് ഏതെങ്കിലും മിക്കവാറും എല്ലാ സാധനങ്ങളും ഉണ്ട് ഫ്ലാസ്ക്ക് ഉണ്ട് പ്ലേറ്റ് ഉണ്ട് കപ്പ് എല്ലാം വന്നിട്ടുണ്ട് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നോൾട്ടേടെ ഉണ്ട് മിൽട്ടൻ്റെ ഉണ്ട് എല്ലാ എല്ലാ കമ്പിനീടെയും ഫ്ലാസ്ക്ക് ഉണ്ട് അത് അത് സാരമില്ല നമ്മൾ നമ്മൾ അതാണല്ലോ എടുക്കുന്നെ അപ്പം ഞങ്ങൾ എത്തിക്കാനുള്ളത് ഉടനെ എത്തിച്ചോളും നിങ്ങളെ സൗകര്യം ആയിട്ട് എല്ലാം കൂടെ വാട്ട്സപ്പില് ഇങ്ങോട്ട് വിട്ടാൽ മതി അപ്പം അത് ഉം ശരി ഓക്കെ ഓക്കെ